ഹലോ ആ അതേ ആ പറഞ്ഞോളൂ ആ ഏ പദ്ധതിയെപറ്റി ഒന്ന് പറയാവോ ആ ആ

അതേയോ ഏ അത് മന്തിലി അടയ്ക്കാനാണ് പ്ലാൻ ഉണ്ട്

മ്മ് മ്മ് മ്മ് അതേയോ ആ എന്തായിരിക്കും ഏത് എത്ര വരെ അടവുകള് എങ്ങനെയാണയിന്റെ ആ അല്ല എമൗണ്ട് എമൗണ്ട് ആ എത്ര എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടോ അത് അതിന് അനുസരിച്ച് ചെയ്യാം അങ്ങനെയാ

ആ ഒരു വര്ഷത്തെ ഒരു വര്ഷത്തെ സ്കീമ് ഒരുവര്ഷം ഇത്ര രൂപ എന്നുള്ള സ്കീമാണ് അതിപ്പം നമുക്ക് എങ്ങനെ വേണേലും അടക്കാം ആ ആ അമ്പതിനായിരം രൂപാനെ പന്ത്രണ്ട് കൊണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് അടയ്ക്കാം അല്ലെങ്കില് പല അഞ്ചു മാസവും പതിനായിരം വെച്ച് അഞ്ചുമാസം കൊണ്ടടയ്ക്കാം വര്ഷം ഇത്ര രൂപ അടവെന്നുള്ളതാണ് അപ്പം അമ്പതിനായിരം രൂപ വെച്ച് ഏഴുവര്ഷം നമ്മൾ അടച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇത് തിരിച്ച്

മ്മ് മ്മ് മ്മ്

മ്മ് മ്മ് മ്മ് ആ ആ മ്മ്

അടച്ച പേമെന്റ് തിരിച്ചു കിട്ടും അതേയോ ആ ആ ആ ആ ആ മ്മ് ഇത് ഒരു ഒരു ഇതില് നമ്മുടെ എത്ര നമ്മുടെ ഫാമിലീനെ മൊത്തം വെച്ചാണെങ്കില് ഹെല്ത്ത് ഇന്ഷുറന്സ് ആണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിന്നെത്ര പേര്ക്ക് പറ്റും അതിലുള്പ്പെടുത്തും

ആ ആ അത് നമ്മള് ആ വീട്ടില് ആലോചിചിട്ട് ഞാന് പറയാം കേട്ടോ ആ ഓക്കെ താങ്ക്യൂ മ്മ്

ആ

പറയാം പറയാം ഈ താത്പര്യം ഉള്ളവർക്ക് നമ്പര് ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ മ്മ്